നല്ലൊരു ഹോം തിയേറ്റർ ആണ് ഞാൻ ആമസോണിലെ ബുക്ക് ചെയ്തു വരുത്തിച്ചതാണ് അധികം വിലയൊന്നുമില്ല നമുക്കൊക്കെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു വിലയിലാണ് പക്ഷെ നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ലതാട്ടോ കാണാനും നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടമായി നല്ല ക്യൂട്ട് ആയിട്ടിരിക്കുന്ന പോലെയൊക്കെ നമ്മൾ എന്ത് സാധനവും എന്തൊരു വസ്തു എടുക്കുമ്പോൾ അതിന് കാണാൻ ഭംഗിയുണ്ടോ എന്നൊക്കെ അല്ലേ നോക്കുക കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് പറ്റാവുന്ന അത്രയും വിലയെ ഉള്ളു എനിക്ക് ഒത്തിരി ഇഷ്ടമായി